നമ്മുടെ കേരളത്തിൽ ഇപ്പൊൾ ഈ എന്താ പറയുക ആരോഗ്യമേഖല കുറച്ച് അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതില് മെയിൻ ആയിട്ട് നമുക്ക് പറയുക എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിനന്റെ അതായത് കേന്ദ്രസർക്കാരിന്റെ കുറെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ഓരോ പദ്ധതികൾ ഇപ്പൊൾ നമ്മുടെ നല്ല മെഡിക്കൽ കോളേജുകൾ വരാനും അവിടെ കൃത്യം ആയിട്ടുള്ള രീതിയിലുള്ള ആരോഗ്യപരിപാലന സംരക്ഷണം പരിപാടികൾ നല്ല ഡോക്ടർമാർ ഇപ്പൊൾ ഈ നമ്മുടെ മന്ത് അല്ലെങ്കിൽ എന്താ പറയുക ക്ഷയരോഗം അതുപോലത്തെ രോഗങ്ങൾ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടാനുള്ള ടൈപ്പ് പദ്ധതികൾ വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക മെച്ചപ്പെട്ട ഈ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ അങ്ങനത്തെ ദൈനംദിന രോഗങ്ങൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലിരുന്ന് കണ്ടുപിടിക്കാൻ തന്നെ പറ്റിയ രീതിയിലുള്ള മെഷീൻ കാര്യങ്ങൾ മെഷീനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വീടുകളിൽ ഓരോ പദ്ധതി വഴി ഇപ്പൊൾ ആൾക്കാർക്ക് എത്തിച്ചുകൊടുക്കുക അങ്ങനത്തെ പിന്നെ നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യപ്രവർത്തകര് അതായത് ഓരോ വീടുകളിലും ഇപ്പൊൾ ആരോഗ്യക്ഷേമ പ്രവർത്തകർ ഈ കുടുംബശ്രീ പ്രവർത്തകരെ പോലെ ഓരോ പഞ്ചായത്തിലും കുറച്ച് ആരോഗ്യ പ്രവർത്തകരുണ്ട് അപ്പൊൾ അവർ ഓരോ വീടുകളിലും പോയി കൃത്യമായിട്ട് എന്താ പറയുക കാര്യങ്ങൾ അന്വേഷിക്കുകയും അസുഖങ്ങൾ പുതിയ വല്ല അസുഖങ്ങൾ എന്തെങ്കിലുമുണ്ടോ എല്ലാം ഇപ്പോൾ വീട്ടിൽ വയസ്സായി കിടക്കുന്ന ആൾക്കാർ ആണെങ്കിലും അങ്ങനത്തെ വൃദ്ധർ ആണെങ്കിലും നടക്കാൻ പറ്റാത്ത ആൾക്കാർ ആണെങ്കിലും അപ്പൊൾ എല്ലാ വീടുകളിലും പോയി അവരുടെ സുഖവിവരങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചു വരുക അതിനുവേണ്ടിയുള്ള പദ്ധതികൾ അപ്പോ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള രോഗനിർണയങ്ങള് സാധ്യമാണ് അപ്പൊൾ ഇതിലൂടെയൊക്കെ നമ്മുടെ ആരോഗ്യരംഗം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ടു പോകുന്നുണ്ട്